പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത് രണ്ട് രണ്ടായിരത്തി എട്ട് പത്തൊമ്പത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ട്